നിലവിൽ ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ ഗുരുക്കളാണ് ഗുരു ആരാണെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ നാരായണ ഗുരു ആണ് ശ്രീ നാരായണ ഗുരു ആണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊരു കണ്ടൻ്റ് കൊണ്ടുവന്ന ആൾ പക്ഷെ ഇപ്പോഴ് ഇപ്പോഴുള്ള ആൾക്കാർ അങ്ങനെ ഉള്ള ഒരു മൈൻ്റിലല്ല പോകുന്നത് അവരിപ്പോൾ അതായത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്നവർക്കും ഉണ്ടാവും അതായത് ഒരു ജാതി അവർ അതായത് ഇപ്പോൾ നിങ്ങളുടെ ജാതിയേതാണെന്നു ചോദിച്ചാൽ അവർ അവരുടെ ജാതീൻ്റെ പേരു പറയും പക്ഷെ ഇവർ ചോദിക്കുമ്പം അങ്ങനെയേ പറയുള്ളു ആ ഒരു മൈൻ്റിലേ പറയുള്ളു പക്ഷെ ആ ഒരു ഇതിൽ ഉറച്ചുനിന്ന ഒരു എന്താ പറയുക വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു അപ്പോൾ ഞാനേറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീ നാരായണ ഗുരുവിനെയാണ് എങ്ങനെയാണ് അറിഞ്ഞത് ചെറുപ്പം മുതലേ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ശ്രീ നാരായണ ഗുരുവിൻ്റെ കഥകളും പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ ഒക്കെപ്പറ്റിയൊക്കെ പഠിക്കാനുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ മലയാളം വിഷയത്തിലൊക്കെ ശ്രീ നാരായണ ഗുരുവിൻ്റെ ഒരുപാട് ഇത് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നെ അതായത് സ്കൂളിൽ നിന്നാണെങ്കിലും പിന്നെ നമ്മൾ വീട്ടീൽ നിന്ന് കേട്ടിട്ടും അങ്ങനെയൊക്കെ